മിക്ക സ്ഥലങ്ങളിൽ നടത്തുന്ന ചിത്ര പ്രദർശനങ്ങളും പോയി കാണാറുണ്ട് നമുക്കത് ഓരോ പ്രദർശനം കാണുമ്പോഴും അതിൽ ആ ഒരു പുതുതായി വരുന്ന ആ ഒരു രീതികൾ ആ ഇപ്പോഴത്തെ നിലവിലെ പ്രവണതകൾ അതെല്ലാം നമുക്ക് ഒരുപാട് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും കലാകാരന്മാരുടെ പുതിയ പുതിയ ഭാവനകൾ ആവിഷ്ക്കരിച്ച് വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മാധ്യമമായ ഇൻസ്റ്റാഗ്രാം മുതലായവയിലൂടെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും ആനുകാലിക പ്രസക്സ്തിയുള്ള വിഷയങ്ങൾ പുതിയ ഭാവനകൾ പുതിയ രീതികൾ പുതിയ പുതു തലമുറയുടെ കാഴ്ച്ചപ്പാടുകൾ അങ്ങനെ ആ ഒരു നിലവിൽ ആ തലത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിച്ച് കൊണ്ടിരിക്കണം ഓരോ പ്രദർശനങ്ങൾ പോയി നിരീക്ഷിക്കുമ്പോഴും നമുക്കതിൽ ഒരു പ്രത്യേക ഒരു തലങ്ങൾ അതിൽ നിരീക്ഷിക്കാൻ പറ്റും ഓരോരുത്തരുടെ പുതിയ ഭാവനകൾ അവരെ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ വ്യക്തമായ പ്രദർശനം മുതലായ കാര്യങ്ങൾ നമുക്കെല്ലാ പ്രദർശനങ്ങളിലും പുതിയ അനുഭവം തരുന്നതാണ്